ആ ആ ആ മാഡം ആ അവിടെ ലൈബ്രറിയിൽ ഏത് ഒക്കെ ആണ് മറ്റേ ക്രൈം ത്രില്ലേഴ്സ് ഉള്ളത്

ആ നോവലുകള് ആ കേൾക്കാം കേൾക്കാം ആ നോവലുകള് ഏത് ആയാലും കുഴപ്പം ഇല്ല രണ്ടും

ആ അതെയൊ ആ അപ്പോൾ അതെ അല്ലെ ആ ആ

അതെ അല്ലെ നാളെ വന്നാൽ കിട്ടുമല്ലോ ആ അപ്പോൾ ഇത് ആ ആ ഏയ് എത്ര മണിക്കാണ് എത്ര മണി മുതൽ ആണ് തുറന്നേക്കുന്നത് ആ അപ്പം ആ ആ ഓ ഓ അങ്ങനെ ഉണ്ടല്ലേ ആ ഇത് ഇത് എത്ര ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് തരണം

ഓ അങ്ങനെ അല്ലേ ഞാൻ ആ എനിക്ക് ഇത് എത്ര ബുക്ക് എടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം വന്നാൽ അതെ കൂടുതൽ എടുക്കാൻ പറ്റില്ല അല്ലെ ആ അതെ അല്ലേ ആ വേറെ ആ ആ അതെ അല്ലേ പേര് രഞ്ജനാ എന്ന് ആ

അതെയോ ആ മാഡം ഇനി ഇപ്പോൾ ഉണ്ടോ അവിടെ സ്ഥലം പാക്കം

ഓ അതെയോ ഇത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടല്ലോ ആ ഞായറാഴ്ച ഇല്ല അല്ലെ ആ അതെ അല്ലെ ആട ആ ആടെയും ആ ഓക്കെ അപ്പോൾ ശരി ഞാൻ

ആ അപ്പോൾ ശരി ഞാൻ നാളത്തന്നെ വരാം ഓക്കെ ശരി താങ്ക്യൂ